പാലക്കാട് ജില്ലയൽ പൊതുവെ കൃഷിയാണ് കണ്ടുവരാറ് ആളുകളൊക്കെ കൃഷിയിലോട്ട് പോകാറാണ് കൂടുതലായും ചെയ്യാറുള്ളത് കൃഷി ചെയ്തിട്ടാണ് കൂടുതലും ആൾക്കാരും മുന്നോട്ട് പോകുന്നത് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ടാണ് അതേ ആൾക്കാരും അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ കൃഷി രീതികൾലുള്ള മുന്നേറ്റം നമ്മുടെ നാടിൻ്റെ ഉയർച്ചയ്ക്കും സമ്പത്ത് വ്യവസ്ഥയ്ക്കും വളരെയധികം പ്രാധാന്യം നൽകുന്നതാണ് നെല്ലാണെങ്കിലും നെല്ലിൻ്റെ കയറ്റുമതി വളരെയധികം കൂടുതലാണ് പുറം രാജ്യങ്ങൾലേക്കാണെങ്കിലും അടുത്തുള്ള സംസ്ഥാനങ്ങൾലേക്കാണെങ്കിലും ഒരുപാട് കയറ്റുമതിയും അതും ഗതാഗത മാർഗ്ഗം വളരെ മെച്ചപ്പെടുത്താനും മറ്റും സാമ്പത്തവ്യവസ്ഥയെ സഹായിക്കുന്ന ഒന്നാണ്